ഇന്ത്യയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സിംസ് എന്ന് പറഞ്ഞാൽ ഏർട്ടല് വിഐ ജിയോ അങ്ങനത്തെ സിംസ് ഒക്കെ ബി എസ് എന്നല് ഇത്രയൊക്കെയാണ് പക്ഷെ ഇപ്പോൾ ബി എസ് എന്നൽ അങ്ങനെ കൂടുതൽ ആരും ഉപയോഗിക്കാറില്ല കുടുതകൽ ആൾക്കാരും വി ഐയും എയർട്ടലും ജിയോയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ജിയോ ഇന്ത്യയുടെ സ്വന്തം സിമ്മാണ് എന്നിരുന്നാലും ജിയോ അത്ര പ്രചാരം നേടിയിട്ടില്ല ജിയോ ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചു പതുക്കെ വരുന്നതേ ഉള്ളൂ ഏയർട്ടല്ലിനും വിഐക്കും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഏയർട്ടലിനും വിഐക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ഇതുവരെ ജിയോ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഈ രണ്ട് സിമ്മിനാണ് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നേ എന്ന് പറഞ്ഞാൽ ബി എസ് എന്നലിൻ്റെ ഫോർ ജി സിമ്മിനൊക്കെ നല്ലത് തന്നെ റേയിൻജ് കാണുമായിരിക്കും എന്നിരുന്നാലും ഞങ്ങളുടെ ഏരിയയിൽ ഞാൻ ഇതുവരെയും അങ്ങനെ അത്ര റേയിൻജ് കണ്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഏർട്ടലും വിഐയുവാണ് നല്ല സിമ്മെന്ന് പറയുന്നത്